പുതിയ കൃഷിയിടം വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാനമായിട്ടും കേരളമെന്നുള്ള സംസ്ഥാനത്തിൽ കേരളത്തിലെ വിളകൾ ഏതൊക്കെയാണെന്നും

അതിന് വേണ്ടതായിട്ടുള്ള മണ്ണ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കൃഷിയിടങ്ങളിൽ ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താകുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം പണ്ട് കേരളത്തിൻ്റെ പ്രധാന വരുമാന മാർഗം എന്നുള്ളത് കൃഷി ആയിരുന്നു പക്ഷെ ഇന്ന് ഈ ആധുനിക കാലത്ത് ഒരുപാട് ഒരുപാട് പുതിയ സംവിധാനങ്ങളുടെയും ഒരുപാട് വികസനങ്ങളും വന്നതോട് കൂടി കേരളത്തിൽ കൃഷി എന്നതിൻ്റെ അതിൻ്റെ പ്രാധിനിത്യം വളരെ കുറവാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പല

വിതരണം ചെയ്യുന്നു എന്നുള്ളത് എന്നിരുന്നാലും നമ്മൾ ഒരു കൃഷി ഇടം വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ട് ആ മണ്ണിൻ്റെ ആ മണ്ണിൻ്റെ ഫലഭൂഷ്ടി ആണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മണ്ണ് ഉണ്ട് അപ്പം അത് നമുക്ക് ഈ മണ്ണിൽ നമുക്ക് പ്രധാനമായിട്ട് കേരളത്തിലെ തേങ്ങ അതുപോലെ തെങ്ങ് അതുപോലെ വാഴ റബ്ബർ തുടങ്ങിയ കാര്യങ്ങൾ അതിനോട് അനുബന്ധമായി അത് അതിനോട്

അതുപോലെ ആ ഒരു കൃഷി ഇടത്തിന് നമുക്ക് ലഭ്യ അവിടെ വെള്ളം ലഭിക്കുന്നുണ്ടോ വെള്ളം ലഭ്യമാകുണ്ടോ എന്നുള്ളതും നമുക്ക് അതിൻ്റെ ആ കൃഷി ഇടത്തിന് അടുത്ത് വല്ല കിണറോ അത് അല്ലെങ്കിൽ ഒരു കുളമോ പുഴയോ മറ്റു കുഴൽ കിണറോ തുടങ്ങിയിട്ടുള്ള നമ്മൾക്ക് കൃഷിയിടങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പ് വരു ഉറപ്പ് വരുത്തേണ്ടതാണ് അതുപോലെ

ഈ ഒരു കൃഷി ഇടത്തിൻ്റെ ഉടമയും അതുപോലെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോക്യമെൻറ്സും കാര്യങ്ങളും

തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതും ഈ ഒരു അത് റോഡൊക്കെ ഉണ്ടേൽ നമുക്ക് നമ്മുടെ വസ്തുക്കൾ നീക്കം ചെയ്യാനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സഹായകമാകുന്നുണ്ട് ഈ ഒരു സംഭവങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്